നമ്മുടെ പ്രദേശത്ത് പിന്നെ പ്രധാന തൊഴിൽ എന്തൊക്കെയാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും കൃഷിയാണ് പ്രധാന തൊഴിൽ പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൺപാത്ര നിർമ്മാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നെയ്ത്ത് ശിൽപ്പ നിർമാണം ശിൽപ്പ നിർമാണമൊക്കെ നമ്മുടെ ഭാഗത്ത് അതായത് വയനാട് ആ ഒരേര്യയിൽ വളരെ കുറവാണ് പിന്നെ കേരളത്തിലൊരുപാടുണ്ടുട്ടോ പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയാണ് നമുക്ക് മെയിന് അതായത് നെൽകൃഷി വാഴ കൃഷി ഇഞ്ചി കൃഷി ഇവിടുന്ന് തന്നെ കുറെ പേര് പുറത്തു പോയിട്ട് അതായത് കുടക് അങ്ങനെയുള്ള സ്ഥലം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സ്ഥലമൊക്കെ വാടകയ്ക്കെടുത്തിട്ട് പിന്നിഞ്ചി കൃഷിയൊക്കെ നടത്തുന്നുണ്ട് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൃഷികൾ പിന്നങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് കപ്പ അങ്ങനുള്ള കൃഷികളെല്ലം ഒക്കെ കൃഷികളിലോക്കെയാണ് കൂടുതലും ആൾക്കാർ ഇതാവുന്നത് പിന്നെ മൺപാത്ര നിർമ്മാണത്തിലൊക്കെയുണ്ട് പിന്നെ ഓരോ ശിൽപ്പങ്ങളുണ്ടാക്കുന്നത് അങ്ങനുള്ള ഒരുപാട് പ്രാഥമിക തൊഴിലുണ്ട് നമുക്ക് അപ്പം ഇങ്ങനെ മൺപാത്ര നിർമ്മാണം ശിൽപ്പ നിർമ്മാണമൊക്കെ കാണാനൊരുപാട് വിനോദ സഞ്ചാരികളൊക്കെ വരുന്നുമുണ്ട്